തീർച്ചയായിട്ടും ഞങ്ങൾ പ്രദേ ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ തീർച്ചയായിട്ടും വിനോദ സഞ്ചാരികൾക്ക് പോകാവുന്നതായിട്ടുള്ള മാർക്കറ്റുകൾ അങ്ങനെ കുറവാണെങ്കിലും പോകാവുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഒരു ബേക്കൽ കോട്ട അതുപോലെ റാണിപുരം അനന്തപുരം അമ്പലം പിന്നെ ബേള പള്ളി തളങ്കര മാലിക് ദിനാർ ചർച്ച് അ പള്ളി ഇത്രയും സ്ഥലങ്ങൾ ഇവിടുത്തെ വിനോദ സഞ്ചാരികൾക്ക് പോകാവുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അവിടുന്ന് ഈ തളങ്കര പള്ളിയിലുമായി ബന്ധപ്പെട്ട് ഒരു തൊപ്പി അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ അതും ലോകപ്രശസ്തമാണ് തളങ്കര തൊപ്പികൾ പിന്നെ മറ്റ് ബേക്കൽ എന്ന് പറയുന്നത് ലോകത്തിലെ ത ഒരു വലിയ വിനോദ സഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ കോട്ട ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ച ഈ ബേക്കൽ കോട്ടയിൽ ഒരുപാട് വിനോദ സഞ്ചാരികൾ കേരളത്തിൽ കാസർഗോഡിൽ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലം ബേക്കൽ കോട്ടയാണ് ഇപ്പം ഉള്ളതിനോട് ചേർന്ന് ബേക്കൽ ബീച്ചുമുണ്ട് ബേക്കൽ ബീച്ചിലുമൊക്കെ ഒത്തിരി സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാസർഗോഡുമായി ബന്ധപ്പെട്ട ഒത്തിരി അരി സാധനങ്ങളൊക്കെ വാങ്ങനൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങാനും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനും വേണ്ടി ഒരുപാട് ആൾക്കാർ ഓരോ ദിവസവും എന്നപോലെ ഇൻ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ലോകത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരൊക്കെ ഈ പ്രദേശങ്ങളിൽ വരാറുണ്ട് അത്തരം സാധനങ്ങളൊക്കെ വാങ്ങി ശരാ ഒക്കെ നല്ല സ ഇപ്പട്ട കാസർഗോഡിൻറ്റേതായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ല വില നിലവാര നല്ല ഗുണനിലവാരമുള്ളവ തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഇപ്പം കേരളത്തിൽ ഒരാൾ ഇവിടെ വന്ന് കാസർഗോഡിൽ നിന്ന് ഒരു സാധനം വാങ്ങിയാൽ അത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സാധനമായിട്ടാണ് അവരത് കണക്കാക്കുന്നത് ഒരിക്കലും അത് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിന്റേതായിട്ട് അവർ കണക്കാക്കില്ല എന്നത് കൊണ്ട് ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പം ഇൻറ്റെ ഫ്രാൻസിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ നമ്മളത് ഫ്രാൻസിലെ ഇന്ന സ്ഥലത്തുനിന്ന് ഒരിക്കലും പറയാറില്ല ഇത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ സാധനം എന്നേ പറയാറുള്ളൂ എന്നത് പോലെ അതുകൊണ്ട് അപ്പം അത് നമ്മൾ കേരള തനിമയെ തന്നെ മാ വിളിച്ചൂതി വിളിച്ച് അറിയിക്കുന്ന ഒരു സാധനമെന്ന നിലയിൽ അത് ഏറ്റവും ഏറ്റവും നല്ല സാധനങ്ങളും ഗുണ നിലവാരത്തിലും മേന്മയൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവടുത്തെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ സർക്കാരും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് വരാനും കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള നല്ല സ്ഥലങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് അതുപോലെ വേറൊരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് റാണിപുരം റാണിപുരത്ത് അവിടെ താമസിക്കാനുള്ള ഒക്കെ നല്ല സൗകര്യങ്ങൾ കോട്ടേജുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാർക്ക് ട്രു പിന്നെ എന്താണ് പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ കാണാനായിട്ട് സഹവസിക്കാൻ ആൾക്കാ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു അനുഭവമാണ് റാണിപുരത്തേക്കുള്ള യാത്ര റാണിപുരം എന്ന് പറയുന്നത് ഒരു വലിയ കേരളത്തിൽ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നല്ലൊരു കുന്നാണ് ആ കുന്ന് ഒരു വനത്തിലൂടെയുള്ള കുന്നിലേക്കുള്ള കാ കാനനപ്പാതകളിലൂടെയുള്ള കുന്നുക്കയറ്റം അപ്പം നല്ലൊരു അനുഭവമാണ് പ്രത്യേകിച്ചും പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ അത് ഗവണ്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ് അവിടം കാരണം ഇപ്പോൾ നമുക്കറിയാം വനങ്ങൾ വനം ഗവണ്മെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണല്ലൊ അതിനോട് അനുബന്ധിച്ചുള്ള ഈ കാനനപ്പാതയിലൂടെ ഈ റാണിപുരത്തിൻ്റെ ഏറ്റോം ഉത്തംഖ ശൃംഖത്തിലെത്തുമ്പോൾ ഒരു കാസർഗോഡ് ജില്ലയിൽ തൊണ്ണൂറ് ശതമാനം സ്ഥലവും കാണാമെന്നുള്ളതാണ് അത്രയും ഉയരത്തിലാണ് നമ്മൾ എത്തുക പ്രത്യേകിച്ചും തണുപ്പൊക്കെ ഉള്ള ഒരു മഞ്ഞൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ഉള്ള ഒരു കാലത്താണെങ്കിൽ ഭയങ്കര നല്ല യാത്രകളായിരിക്കും അതുപോലെ നമ്മൾക്കൊരിക്കലും കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള ഇടതൂർന്ന വനങ്ങളും ഇടതൂർന്ന പല വൃക്ഷങ്ങളും പലതരത്തിലുള്ള മരങ്ങളും വൃക്ഷങ്ങളും മുമ്പേ മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ കൊണ്ട് പലതരത്തിലുള്ള ഒരു മൃഗങ്ങളും എല്ലാം കൊണ്ടും വളരെ സമ്പുഷ്ടമായ സ്ഥലമാണ് ഈ പ്രദേശം അങ്ങനെ കാഴ്ച്ചക്കാരെ എറ്റവും കൂടുതലാകർഷിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ഇന്ന് നമ്മുടെ റാണിപുരം മാറിയിരിക്കുന്നു ബേക്കലിൽ ഈ അടുത്ത കാലത്ത് നടത്തുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിലേക്ക് ആൾക്കാർ ഒരുപാട് ആകർഷിക്കപ്പെടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ സ്വദേശീയരായ ഞങ്ങൾക്ക് പോലും കടന്ന് ചെല്ലാൻ പറ്റാത്ത വിധം കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്നവരെ കൊണ്ട് വൈകുന്നേരങ്ങൾ അവിടെ ജന നിബിഡമായിരിക്കും വിവിധങ്ങളായ താര ആൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒക്കെ സാന്നിധ്യവും അവരുടെ കലാ പ്രദർശനങ്ങളുവൊക്കെ എല്ലാ വൈകുന്നേരങ്ങളിലും ഒരാഴ്ച്ച രണ്ടാഴ്ച നീണ്ട് നിൽക്കുന്ന ഈ രോ പരിപാടിയിൽ അവർ നടത്താറുള്ളത് കൊണ്ട് അതൊക്കെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ എത്തിച്ചേരുന്നത് വഴി ന്ത കേരള തനിമ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു അതുപോലെ കാസർഗോഡിൻറ്റേതായി മാത്രമുള്ള വിഭവങ്ങൾ അറിയാം കാസർഗോഡിൻറ്റേതായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ട് അത്തരം പലഹാരങ്ങളുണ്ട് പല പല ഫു ഫുഡ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഭക്ഷണ ഐ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ചും തിന്നും രുചിച്ചും ആസ്വദിച്ചും കലയൊക്കെ ആസ്വദിച്ചും ഒക്കെ ആൾക്കാർ സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നത് കാ കാണാം നമുക്കും ഞങ്ങളും ഇതിനൊക്കെ പോകാറുണ്ട് നമ്മൾ വെ ഇടയ്ക്കൊക്കെ പോകുന്ന സ്ഥലമാണ് ഈ ബേക്കൽ ബീച്ച് ബേക്കൽ ബീച്ചിൽ ബേക്കൽ ബീച്ചിൻ്റെ ഈ ഫെസ്റ്റ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത വിധം അത്ര ജനനിബിഡമാണ് പക്ഷേ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മുന്ന് മാസം കൂടുമ്പോഴൊക്കെ ഈ ബേക്കൽ ബീച്ചും ബേക്കൽ കോട്ടയും ഒക്കെ ഞങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് ഈ തൊട്ടടുത്തും ഞങ്ങൾ സന്ദർശിച്ചിരുന്നു ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു ഗ ഒര് അതിഥി വന്നാൽ അവരെ ഒന്ന് ബേക്കൽ ബീച്ചിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ ബേക്കൽ പ കോട്ടയിൽ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവരോടുള്ള ആതിഥേയ മര്യാദയുടെ ഒരു ഭാഗം തന്നെയായിട്ട് നമ്മളിപ്പോൾ അത് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം അവരെ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കും അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അനന്തപുരം അമ്പലം അനന്തപുരം അമ്പലം അത് തിരുവനന്തപുരത്തുള്ള അനന്തപുര ശ്രീ പത്മനാഭ സ്വാമീ ക്ഷേത്രത്തിൻ്റെ മായി ബന്ധപ്പെട്ട ഒരു ഐതീഹ്യം അതിനുണ്ട് ആരംഭം എന്ന് പറയുന്നത് ഈ അനന്തപുരം അമ്പലത്തിൽ നിന്നാണ് അതിൽ നിന്ന് അങ്ങോട്ട് ഒരു വഴിയുണ്ടെന്നൊക്കെയാണ് പുരാതന പുരാണം അന്നത്തെക്കാലത്തെ ആൾക്കാർ പറയുന്നത് അവിടെ ഈ അമ്പലത്തിൽ ബബിയ എന്ന് പറഞ്ഞൊരു മുതലയുണ്ടായിരുന്നു അതീ അടുത്ത കാലത്ത് ചത്തു പക്ഷേ അത് കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ ഒരു തൊ മുതല അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ എവിടുന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല അങ്ങനെ അത്ഭുതങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ സ്ഥലമായിട്ട് കാസർഗോഡ് അങ്ങനെ കഴിയുകയാണ് സപ്ത ഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് കാസർഗോഡ് പ്രത്യേകിച്ചും പല ഭാഷകൾ ഞാൻ പറഞ്ഞത് പോലെ ഏഴ് ഭാഷകൾ സംസാരിക്കുന്ന മലയാളവും കന്നഡയും തുളുവും കൊങ്കിണിയും എല്ലം കൂടെ ചേർന്ന ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് കാസർഗോഡ് അതിന്റേതായ ഒരു സൗന്ദര്യം കാസർഗോഡിന് വേറെ തന്നെയുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും മറ്റ് ആൾക്കാരെ ഒക്കെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള സവിശേഷതകളോട് കൂടി ഈ കാസർഗോഡ് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും ഇവടുത്തെ ആൾക്കാർക്ക് ഒരു വളരെ നിര എന്താണ് പറയുക നിഷ്കളങ്കരായ മനുഷ്യർ കള്ളത്തരങ്ങളും കള്ളവും ചതിയും ഒന്നും അധികം ഇല്ലാത്ത മറ്റുള്ളവരെ ഒക്കെ വിശ്വസിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കാൻ മനസ്സും കാണിക്കുന്ന നല്ലൊരു ജനവിഭാഗം മറ്റ് രാ സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ചെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ജനങ്ങളൊക്കെ കൊണ്ടൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് നിന്നസ് നിഷ്കളങ്കരായ ഇത്ര മനുഷ്യരുടെ കൂടെ സഹവസിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമായി കാസർഗോഡ് മാറിയിരിക്കുന്നു ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോവാൻ എല്ലാവർക്കും കഴിയട്ടെ നന്മകൾ നേ നേരുന്നു കാസർഗോഡിൻ്റെ ഈ പ്രകൃതി സൗന്ദര്യം അതുപോലെ വസതികുമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അനന്തപുരത്തിൻ്റെ കുറച്ച് അപ്പുറം അത് വൈകുന്നേരങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന വസതികുമ്പ കുന്നുകൾ ഏതൊരാളെയും ആകർഷിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാസർഗോഡിനെപ്പറ്റി പറയാനുണ്ട് ഇവിടുത്തെ വിഭവങ്ങളെപ്പറ്റി പറയാനുണ്ട് ഇവിടുന്ന് വിഭവങ്ങൾ കാസർകോഡിൻറ്റേതായിട്ടുള്ള ഒരു വിഭവമാണ് ചിക്കൻ സുക്ക നമുക്കറിയാം ചിക്കൻ കറി എല്ലാവരും കോഴിക്കറി നമ്മളെല്ലാവരും കൂട്ടുന്നു പക്ഷേ ചിക്കൻ സുക്ക എന്ന് പറഞ്ഞിട്ട് കോഴിച്ചുക്ക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരത്തിൽ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ ഇവിടെ രുചിച്ചറിയാനുള്ള ഒരു സംവിധാനം കാസർഗോഡ് എത്തുന്നവർക്ക് ഉണ്ട് അങ്ങനെ എല്ലാ നന്മകളോടും കൂടി കാസർഗോഡ് വന്ന് പോകുന്നവർക്ക് തിരിച്ച് പോകാൻ ഉള്ള അവസരം ഉണ്ടിവിടെ നല്ലവരായ ഈ കാസർഗോഡ് ജനങ്ങളോട് ചേർന്ന് ജീവിച്ച് അവരെ കണ്ട് മറിഞ്ഞ് ആസ്വദിച്ച് മ തിരിച്ച് പോകാനുള്ള അവസരം എല്ലാ വിനോദ സഞ്ചാരികൾക്കും ഇവിടെ ഉണ്ട് അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു